ആ ഞാന് വിളിക്കുന്നത് സുധാകരനാണ് ആ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് ആ ആ നമ്മൾ നമ്മുടെ ഒരു ഹോള് സെയില് ഡീലറാണ് നിങ്ങൾക്ക് സാധനങ്ങൾ ബള്ക്കായിട്ടു തന്നാല് നമ്മൾ അത് കൈകാര്യം ചെയ്തു തരും ആ തരാന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഡ്രസ് ഐറ്റംസാണ് സാരി സാരി ചുരിദാർ മുണ്ട് ഷര്ട്ട് ബള്ക്കായിട്ടെടുക്കുന്നതാണ് കൂടുതലോഡർ വരുന്നതനുസരിച്ച് നമ്മളത് കമ്മീഷന് കൂട്ടിത്തരാന് പറ്റും

മെറ്റീരിയലും ഉണ്ട് റെഡി മേയ്ഡും ഉണ്ട് അതു പല പല റേഞ്ചുണ്ട് അതു പല റേഞ്ചിലെ വിലയുണ്ട് നമ്മൾ മുന്നൂറ് രൂപ തൊട്ടങ്ങോട്ട് ഏതു റേഞ്ചിൽ വില ഉണ്ട് അതിപ്പം നമ്മൾ പീസെണ്ണം നിങ്ങൾ എത്രയെണ്ണം എടുക്കുന്നു അതിന്റെ ആ പീസെണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചു തരാന് പറ്റുന്നത് അതൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ് ഇപ്പം ഒരു മോഡൽ ഇന്ന മോഡൽ ഇത്ര ഇത്ര പീസെടുത്തു കഴിഞ്ഞാല് നിങ്ങളിപ്പം അതിൻ്റകത്ത് നമ്മൾ എന്തെങ്കിലും ഡാമേജോ അങ്ങനെ കുഴപ്പങ്ങളോ ഉണ്ടേ നമ്മൾ റിട്ടേണ് ചെയ്യാം കുഴപ്പമില്ല

ആ മ്മ് ആ ഇത് ഇട്ടു തരാം ഇട്ടു തരാം മോഡലും മോഡലും റൈറ്റും ക്യാറ്റ്ലോഗും എല്ലാം അയച്ചു തരാം അത് പല സ്ഥലത്തു നിന്ന് അത് പല സ്ഥലത്തു നിന്നു വരുന്നുണ്ട് ചുരിദാർ കൂടുതലും ജയ്പ്പൂരിൽ നിന്നാണ് വരുന്നത് തിരുപ്പൂരിൽ നിന്ന് ബനിയൻ ഐറ്റം വരുന്നത് തമിഴ് നാട്ടിൽ നിന്ന് മുണ്ട് ഐറ്റം വരുന്നത് പല സ്ഥലത്തു നിന്നു വരുന്നതാണ് ബനിയൻ ഐറ്റവും ഉണ്ട് ബനിയൻ ഏറ്റവും ഉണ്ട് വില കൂടിയ വില കൂടിയ പട്ട് സാരികളുണ്ട് കല്യാണത്തിനുപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഹോള് സെയിലായിട്ട് സപ്ലേ ചെയ്യും പട്ട് സാരി കാഞ്ചീപുരം ആ വില കൂടുതലായിരിക്കും കമ്മീഷന് കുറവായിരിക്കും മ്മ് അപ്പം അത് അതനുസരിച്ച് നമ്മളിപ്പം കമ്മീഷന് കൂടുന്നതാണ് സാധനത്തിന് അതു കണക്ക് ക്വാളിറ്റിയും വ്യത്യാസം കാണും ഇല്ല ബനിയൻ ഐറ്റം നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ക്യാഷ്വല് ബനിയനാണ് ചെയ്യുന്നത് ഏഹ് ഇന്നര് ബനിയന് ഇന്നര് ബനിയനൊന്നും ചെയ്യുന്നില്ല പട്ടു സാരി സാരി പട്ടു സാരി സാരിയും ചുരിദാർ റെഡി മേയ്ഡ് അല്ലാതെ മെറ്റീരിയൽ ഷര്ട്ട് മുണ്ട് ബനിയന് ടീഷര്ട്ട് ടീഷര്ട്ട് സ്ലീവ്ലെസ്സ് സ്ലീവുള്ളത് എല്ലാമുണ്ട് അത് സൈസനുസരിച്ച് പറഞ്ഞാൽ മതി ഹലോ ഹലോ ആ അതെ അതെ അതു പറയുന്നതിനനുസരിച്ച് തരും ചുരിദാറിന്റെയൊക്കെ മെറ്റീരിയൽ ഉണ്ട് റെഡി മേയ്ഡും ഉണ്ട് തയ്ച്ചതും ഉണ്ട് അതെല്ലാം ക്വാളിറ്റിയും വരും സാറെ റേറ്റിനനുസരിച്ചതിന് വ്യത്യാസം വരും നല്ല നല്ല നല്ല സ്റ്റഫിനു നല്ല സ്റ്റഫിന് നല്ല വില ഏതാണ് ആ ആ സാമ്പിൾ നോക്കി കഴിഞ്ഞ് നിങ്ങൾ സാറ്റിസ്ഫൈഡാണെങ്കിൽ ഓഡര് തന്നാൽ മതി അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം ആ ഓക്കെ ഓക്കെ അതു വിളിച്ചിട്ട് വന്നോളാം ഓക്കെ